ഈ ചെറിയ സംരംഭങ്ങൾ എന്നൊക്കെ പറയുന്നത് അതായത് ചെറിയ ചെറിയ തട്ടുകടകൾ അതായത് രാത്രി മാത്രമുള്ള തട്ടുകടകൾ പകലുള്ള തട്ടുകടകളും ഉണ്ട് പിന്നെ അതുപോലെത്തന്നെ ഉച്ചയൂണ് മാത്രം കൊടുക്കുന്നത് ഈ കുറച്ച് ചേച്ചിമാരുടെ കടകൾ പിന്നെ വെറ്റില അടക്ക അതുമാത്രം കൊടുക്കുന്ന കടകൾ ഈ ചെറിയ ചെറിയ ഗുമ്മിട്ടി പീടിയകൾ അതായത് മുട്ടായി സിഗരറ്റ് പിന്നെ ഉപ്പിലിട്ടത് അങ്ങനത്തെയൊക്കെ കൊടുക്കുന്നെ കടകൾ അങ്ങനെയൊക്കെ ആണ് ഉള്ളതാണ് ചെറിയ സംരംഭങ്ങൾ എന്നു പറയുന്നത് അതിൽ ഈ ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങിട്ട് ആണല്ലോ എല്ലാവരും വലിയ വലിയ സംരംഭങ്ങളിലേക്ക് ഒക്കെ എത്തിക്കുന്നത് ഇതേപോലെ ഉള്ളതൊക്കെയാണ് ചെറിയ സംരംഭങ്ങൾ